എൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടു വരുന്ന

സംസ്കാരത്തിൻ്റെ തനതായ ചില കലകളും കരകൗശലങ്ങളുമുണ്ട് അതിൽ രാവിലെ തന്നെ കലയുമായി ബന്ധപ്പെട്ടു കോലമിടുന്നതും വീടിൻ്റെ മുറ്റത്തും അല്ലെങ്കിൽ ഗേറ്റിൻ്റെ മുറ്റത്തും കോലമിടുന്നത് ഒരു കലയാണ് കൂടാതെ അമ്പലത്തിൽ കോലമിടുന്നതും വർണ്ണങ്ങൾ പല വർണങ്ങളും ചേർത്തുള്ള കോലമിടുന്നതും ഇതൊക്കെ കലയുടെ ഭാഗമാണ് കരകൗശലത്തിൻ്റെ ഭാഗം വരുമ്പോൾ അത് നവരാത്രി ദിനങ്ങളിലാണു വരുന്നത് നവരാത്രി ദിനങ്ങളിൽ മൂന്നു പടി ആറു പടി ഒമ്പതു പടി എന്നിങ്ങനെ പന്ത്രണ്ട് ഇങ്ങനെ പടികൾ പല പല കരകൗശലങ്ങൾ വിഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ആ ഇത് കൊലുകൾ എല്ലാം വച്ചു കൈകൊണ്ടു ചെയ്തതും റെഡിമെയ്ഡായിട്ടു കിട്ടുന്നതും എല്ലാം അതിൽവച്ച് ഒമ്പതു ദിവസങ്ങൾ നല്ല ഭംഗിയായി ആചരിക്കുന്ന ഒരു ഒരു ദിനങ്ങളാണു നവരാത്രി ദിനങ്ങളെന്നു പറയുന്നത് ഈ ദിവസങ്ങളിൽ പാട്ടും ഡാൻസും അമ്പലങ്ങളിൽ അ പാട്ട് ഡാൻസ് എന്നിങ്ങനെ ഇൻസ്ട്രമെന്റുകൾ എല്ലാം വായിച്ച് കല കല എന്ന രീതിയിൽ അതും അതും ചെയ്യുന്നുണ്ട്